ഹലോ ഷീജ അല്ലെ എടീ ഇവിടെ അതെ എടീ ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ആയൂർവേദ കണ്ണാശുപത്രി ഉണ്ടൊടീ എനിക്ക് രണ്ട് ദിവസം ആയിട്ടെ രണ്ട് ദിവസം ആയിട്ടെ എൻ്റെ കണ്ണിനു ഭയങ്കര വേദനയാണ് അപ്പം ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഓ മ്മ് അതെ എനിക്ക് ഭയങ്കര അലർജി ആണ് മറ്റെ വ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോഴൊക്കെ അതുകൊണ്ട് ആയുർവേദം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ ആ അപ്പോൾ അവിടുത്തെ അവിടുത്തെ റേറ്റൊക്കെ എങ്ങനെയാണ് ഒരുപാടൊക്കെ ആകുമോ അത് എങ്ങനെ ആണ് ഇറച്ചിയും മീനൊക്കെ കൂട്ടാൻ പറ്റുമോ ആയുർവേദം അല്ലേ അപ്പോൾ എത്ര നാള് എത്ര നാള് ഇവിടെ കിടക്കേണ്ടി വരും ട്രീറ്റ്മെൻറ്റിന് എന്നിട്ട് നല്ല സുഖമായോ ആൻറ്റിക്ക് നല്ല സുഖമായോ അപ്പോൾ എത്ര ആൻറ്റിക്ക് എത്ര രൂപയായി അത് അറിയാവോ ആ സാമ്പത്തികം അതാണ് ഏറ്റവും പ്രശ്നം കണ്ണാടി വെക്കണ്ടി വരുവായിരിക്കും അല്ലേ അത് അല്ലെങ്കിൽ വേറെ അടുത്ത് വേറെതെങ്കിലും ആയൂർവേദ ഹോസ്പിറ്റലുണ്ടോ ആ ആ അവ് ഇംഗ്ലീഷ് മരുന്ന് പറ്റുകയില്ല എനിക്ക് അലർജ്ജി ആണേ അതുകൊണ്ട് അപ്പഴും ഞാൻ വിചാരിച്ചു ആയുർവേദം ചെയ്യുവാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ നല്ലത്

എന്നാൽ എന്നാൽ ഒന്ന് അറിയിക്കണേ അറിയിക്കണേ ആ എങ്കിൽ ഓക്കെ ഓക്കെ ടീ ഓക്കെ